ഹലോ ഇത് ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ അല്ലേ എൻ്റെ പേര് അശ്വതി എന്ന് ആണേ ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ എനിക്ക് രണ്ട് മക്കള്സുണ്ട് അപ്പോൾ അവർക്ക് അവിടുത്തെ സ്കൂളിലോട്ട് അഡ്മിഷൻ എടുക്കാൻ ഉള്ള കാര്യങ്ങൾ ചോദിയ്ക്കാൻ വേണ്ടി ആയിരുന്നു ഞാൻ വിളിച്ചത്

ഒരാൾ എൽകെജിയിലോട്ടും ഒരാൾക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ടും ആണ് വേണ്ടത് അ അ എന്തോ രണ്ടുപേരും ബോയ്സ് ആണ് ഒരാളുടെ ഇതിനുമുന്നേ മൂത്ത ആള് ഇവിടെ അടുത്തുള്ള വിജയ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്

അ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അ അതെ പെട്ടെന്ന് സ്ഥലം മാറേണ്ടി വന്ന സ്ഥിതിക്ക് ആണ് കൊട്ടാരക്കരയിലോട്ട് മാറേണ്ടി വന്നപ്പോൾ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അ ഓക്കേ അവിടെ ഇംഗ്ലീഷ് മീഡിയം തന്നെ അവൈലബിൾ അല്ലേ

ഞങ്ങള് ഞാൻ അടുത്ത മൻന്ത് ടൂ ട്വൻറ്റി സെക്കൻറ്റിന് വരും അ ഓക്കെ അവിടെ പത്ത് മണി തൊട്ട് നാല് മണി വരെ ഉണ്ടാവില്ലെ

അ ഓക്കെ അഡ്മിഷൻ ഫീസ് കാര്യങ്ങളൊക്കെ എന്തോരം ആണ്

അ ഓക്കെ ലഞ്ച് ടൈം ഒക്കെ എപ്പോഴാണ് മാം അവിടെ അ ഓക്കെ കുട്ടികൾ അവിടെ ഇംഗ്ലീഷ് മാത്രേ സംസാരിക്കാവുള്ളു അങ്ങനെ ഉണ്ടോ ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും അങ്ങനെ അ ഓക്കേ ആണോ ഓക്കെ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാമോ സാൻസ്ക്രിറ്റ് ഉറുദുവിൽ അ എടുക്കാം ഓക്കെ എന്നാൽ ഞാൻ അടുത്ത മൺണ്ടേ വരാം അ ആയിക്കോട്ടെ ഓക്കെ താങ്ക്യൂ